എൻ്റെ ജന്മനാടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ മെഡിക്കൽ കോളേജിലാണ് ഞാൻ ഉണ്ടായത് അപ്പോൾ എനിക്ക് ജന്മനാടിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇവിടെ ജനിച്ച് വളർന്നതെല്ലാം ഇവടെ തന്നെയാണ് അപ്പം എൻ്റെ കുടുംബക്കാർ എൻ്റെ അമ്മ അച്ഛൻ അമ്മ എല്ലാവരും ഇവിടെ തന്നെയാണ് അപ്പം മെയിനായിട്ടുള്ളത് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ട്ടമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗൺ തന്നെയാണ് ടൗൺ ഞാൻ കുറച്ച് ഉള്ളിലേക്കാണെങ്കിലും എനിക്ക് ടൗണൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൗണിലൊക്കെ പോയി നിൽക്കും അവിടത്തെ ബസ് സ്റ്റാൻഡ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ പോയി നിൽക്കാറുണ്ട് പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോവുക പിന്നെ എയർപോർട്ട് അങ്ങനത്തെ നമ്മൂടെയിവിടെ ബൈപ്പാസ് തന്നെ നല്ല രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട രീതിയിലൊക്കെ ആയി വരുന്നുണ്ട് പണ്ടത്തെ ഒരു കോഴിക്കോട് പോലെയല്ല പിന്നെ ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ മിഠായി തെരുവും പിന്നെ മാനാഞ്ചിറ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി ഇരിക്കാറുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനാഞ്ചിറയിൽ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്നിരുന്ന് അവരുടെ ഒഴിവ് സമയമൊക്കെ ചിലവഴിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെയുണ്ട് നമുക്ക് പോയി ഇരിക്കാൻ പറ്റിയ ബീച്ചിൽ പോയി ഇരിക്കാം ബീച്ചിലൊക്കെ നല്ല രീതിയിൽ നമ്മൾക്ക് ഒഴിവ് സമയമൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതു തന്നെയാണ് അപ്പോൾ ബീച്ചിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേണെമെങ്കിൽ പോയി ഇരിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം